സെൻട്രൽ മാർക്കറ്റാണോ ആ ഞാൻ ആണെങ്കിൽ വിളിക്കുന്നേ എനിക്ക് ഷൂ എടുക്കാനുണ്ടായിരുന്നു ഒരു നല്ല ഷൂ വാങ്ങിക്കണം അപ്പോൾ അതിനായിട്ട് വിളിക്കുന്നതാണേ അവിടുത്ത ഷൂവിൻ്റെ ഇത് ഓ ക്വാളിറ്റി ഉള്ളത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഡെയിലി യൂസ് വേണം ഡെയിലി യൂസ് വേണം ഡെയിലി യൂസും വേണമെന്നുണ്ട് പിന്നെ പാർട്ടിക്കിടാനൊരെണ്ണം വേണം അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് പറയാമോ

ആ അപ്പോൾ നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ ഷൂവിൻ്റെ റേറ്റൊക്കെ ഒന്ന് പറയാമോ ഇത് അതല്ല നമുക്ക് ഹോം ഡെലിവറി ഒക്കെ കാണുമോ ആ അതല്ലേ ഇപ്പം നിങ്ങളുടെ മാർക്കറ്റിലോട്ട് വരണമെങ്കിൽ ആ റോഡ് ഏത് വഴിയാണ് വരേണ്ടതെന്നൊന്ന് പറയാമോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പസിറ്റാണോ ആ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഹോം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ അത് ഡാമേജ് വല്ലതും ആയാൽ ഫണ്ട് റീഫണ്ടാവുമോ അപ്പോൾ ഈ പാർട്ടി വെയർ ഷൂവിൻ്റെ ഇതൊന്ന് പറയാമോ റേറ്റും എല്ലാം ആ അങ്ങനെയാണല്ലേ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ അപ്പോൾ നമ്മളവിടെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചാർജ് കുറച്ചൊക്കെ തരുമോ ഓ അപ്പം അത്യാവശ്യം ഒരു അഞ്ചെണ്ണം ഒക്കെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ പൈസ കുറച്ചുതരുമോ ആണല്ലേ അപ്പം അപ്പോൾ

അതൊരഞ്ച് അഞ്ച് പേർക്കുള്ളതാണ് നമ്മൾ ഫംഗ്ഷൻ ഇടാനായിട്ടാണുദ്ദേശിക്കുന്നത് അഞ്ച് പേർക്കുള്ളത് വേണമായിരുന്നു വന്ന് വാങ്ങിക്കണം ഹോം ഡെലിവറിയാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളറ് കിട്ടില്ലല്ലോ പ്രൈസും ആ ഓക്കെ ഓക്കെ